ഹലോ മണപ്പുറം ഗോൾഡ് ലോൺ ആണോ അപ്പം ഞങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ വേണ്ടിയാണേ അപ്പം നമുക്കെന്തെങ്കിലും എവിടെൻസ് കാര്യങ്ങളെന്തെങ്കിലും വേണോ ആ വിദ്യാഭ്യാസ ലോൺ ഗോൾഡ് വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ

ആ ഹാ ഹാ മുപ്പത്തിയേഴ് ഇരുന്നൂറ് അല്ലേ അപ്പോൾ നമുക്കൊരു അഞ്ചുലക്ഷത്തോളം വേണം എന്തായാലും അപ്പോൾ ഒരു പതിനഞ്ച് പവൻ വേണ്ടിവരും അല്ലേ ഇപ്പോൾ സ്ഥലം വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ വന്ന് നോക്കുവൊക്കെ വേണ്ടേ എന്നിട്ടല്ലേ സ്ഥലത്തിൻ്റെ വില കാണുള്ളൂ ആണല്ലേ ആ ഹാ ഹാ ആ പിന്നെ നമുക്ക് വേറെന്തൊക്കെയാണ് എവിടെൻസ് ഒക്കെ പഞ്ചായത്തിലൊക്കെ പോയി റെഡി ആക്കണം അല്ലേ ആ അത്രയും മതിയല്ലേ

അങ്ങനെയാണല്ലേ ആ അത്യാവശ്യം ആയിരുന്നു അതായത് നഴ്സിംഗിന് വിടാൻ വേണ്ടിയാണേ അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ എല്ലാ സ്ഥലത്തും അഡ്മിഷൻ ഒക്കെ തുടങ്ങിയില്ലേ അപ്പോൾ നമ്മൾ ഗവൺമെൻറിൽ കിട്ടുമോ നോക്കി അപ്പം ഗവൺമെൻറിൽ കിട്ടാൻ വലിയ ചാൻസ് കുറവാണ് കാരണം ഇപ്പോൾ എല്ലാരും ഫുൾ എ പ്ലസ് ഒക്കെയല്ലെ അപ്പോൾ ഇവൾക്കൊരു എൺപത് ശതമാനം ഉള്ളു അപ്പം പ്രൈവറ്റിൽ തന്നെ വിടണം അപ്പം ഹോസ്റ്റൽ ഫീസ് തന്നെ മാസം ആറായിരത്തഞ്ഞൂറു രൂപ വരും എന്നാണ് പറയുന്നത് അപ്പം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അല്ലാണ്ട് നമ്മളിപ്പം പഠിച്ചിറങ്ങാൻ മൂന്നുവർഷത്തേക്ക് ബി എസ് സി ആണേ അപ്പം മൂന്നുവർഷത്തേക്ക് പഠിച്ചിറങ്ങാൻ അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു മൂന്നുലക്ഷമൊക്കെ വേണം എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഇതുരണ്ടും കൂടെ എങ്ങനെപോയാലും നമുക്കത്രയും തുക നമ്മുടെ കൈയിലില്ല പിന്നെ എന്ന് വെച്ചാൽ ബുക്ക് സാധനങ്ങൾ യൂണിഫോം അങ്ങനെയുള്ളതൊക്കെ വേണ്ടേ ഞങ്ങളുടെ കൈയിൽ ഒട്ടും

ഇപ്പോൾ ഗോൾഡ് ആണെങ്കിൽ നമ്മൾ ഗോൾഡും പിന്നെ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്

ഗോൾഡ് അങ്ങനെയാണെങ്കിൽ ഗോൾഡ് വയ്ക്കാം അങ്ങനെ ആരെങ്കിലും നമ്മുടെ കൂടെ സാക്ഷിയോ അങ്ങനെ എന്തെങ്കിലും വേണോ സാക്ഷി അങ്ങനെന്തെ അല്ല നോമിനി വേണോ

ആണല്ലേ ആ ഓക്കേ ആ ഓക്കെ അപ്പം തിങ്കളാഴ്ച നിങ്ങൾ ഓപ്പൺ അല്ലേ അങ്ങനെ ആണെങ്കിൽ തിങ്കളാഴ്ച വന്നാൽ നിങ്ങൾ അന്നുതന്നെ എമൗണ്ട് കിട്ടുമോ അതോ എന്തെങ്കിലും പ്രൊസീജർസ് ഒക്കെ കഴിഞ്ഞിട്ട് ഡിലേ ആവുമോ ആണല്ലേ ആ എന്നാൽ പിന്നെ ഞാനെന്നാൽ മണ്ടേ വരാം എന്നിട്ട് നമുക്ക് മണ്ടേ എത്ര പവന് എത്ര കിട്ടുമെന്നൊന്ന് നോക്കാം ഒന്നു വന്നിട്ട്